ഹലോ ആ ഇത് സുധീഷല്ലെ ഇത് നിഹാലിൻ്റെ ഫാദറ് സുധീഷല്ലെ ആ ഞാൻ സുജിത്താണ് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷ് ആണ് നിഹാലിൻ്റെ മാഷ് ആണ് ഇത് നിഹാലിനെ കുറിച്ച് കുറച്ച് കംപ്ലെയിൻ്റ് പറയാനാണ് ഞാൻ വിളിച്ചത് നിഹാലിൻ്റെ ഇപ്പോൾ ആ പഠിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ മാർക്ക് എല്ലാം ഭയങ്കരമായിട്ട് പിന്നോട്ട് പോവുന്നുണ്ട് ഇത് എന്താണ് വീട്ടിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല നിഹാലിനെ അത് തന്നെ നിഹാലിൻ്റെ ഇപ്പം ഈ പ്രാവശ്യത്തെ മാർക്കിലെല്ലാം ഭയങ്കര കുറവുണ്ട് ഗ്രേഡ് എല്ലാം ഭയങ്കര കുറവാണ് അപ്പോൾ ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ

അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ആ എല്ലാം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അവർക്ക് ആ ഞാൻ ഇതാക്കലുണ്ട് പിന്നെ അഡീഷണല് ട്യൂഷൻ എല്ലാം കൊടുക്കുന്നെങ്കിൽ നല്ല നല്ലതായിരിക്കും അവന് ഉം എന്നാൽ പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഇപ്പോൾ ഇതാക്കുന്നുണ്ട് കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി വീട്ടിൽ നിന്ന് നന്നായി ശ്രദ്ധിച്ചാൽ നല്ല മാറും കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നല്ല മാർക്ക് ആയിരുന്നു ഇനി ഇപ്പം മൊബൈലിൻ്റെ ഉപയോഗമായിരിക്കും കുറഞ്ഞത്

ആ ആ അപ്പോൾ ഒന്ന് നോക്കണം അതിൽ ഗെയിമെല്ലാം ഉണ്ടെങ്കിൽ അത് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ആ പാരൻ്റ്സ് തന്നെ ഒന്ന് കൂടി എല്ലാം അപ്പോൾ അത് കുഴപ്പമില്ല എല്ലാം ഞാൻ അടുത്ത് തന്നെ ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട് ഒരു പാരൻസിൻ്റെ മീറ്റിംഗ് വിളിക്കുന്നുണ്ട് നമ്മൾ അടുത്ത ആഴ്ച തന്നെ വിളിക്കും അപ്പോൾ ഒന്ന് നിങ്ങൾ ഒന്ന് വന്ന് അച്ഛനും അമ്മയും വന്നിട്ട് അറ്റൻഡ് ചെയ്യണം മീറ്റിംഗ് ഓക്കെ ആ അത് ഞാൻ റെഡി ആക്കിക്കോളാം ഒന്ന് ഇതാക്കാം ആ ഓക്കെ അത് നമ്മൾക്ക് മീറ്റിംഗിൽ ഒന്ന് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഞാൻ വെക്കുന്ന് കേട്ടോ ശരി ഓക്കെ